തൊണ്ടവേദന വരുമ്പം ഞങ്ങൾ സാധാരണ ഗ്രാമത്തിലുള്ളവർ ചെയ്യുന്ന നാട്ടുവൈദ്യം ഉപ്പുവെള്ളം ഉപ്പുവെള്ളം തൊണ്ടയിൽ വെച്ചിങ്ങനെ കാർക്കിക്കും അത് അത് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചു നമുക്ക് ആശ്വാസം കിട്ടും പിന്നെ ചിലർ പറയും ഗ്രാമ്പു ഇട്ട വെള്ളം തിളപ്പിക്കും പിന്നെ ചിലർ പറയും ആവി പിടിക്കുക ആവി പിടിക്കുമ്പോഴത്തേക്ക് തൊണ്ടയിലേക്ക് ആവി ആ കഫകെട്ടെല്ലാം കൂടെ വന്നിരിക്കുമ്പം പോം പിന്നെ ഈ ടോൺസിൽസിന്റെയൊക്കെ ഒരസുഖം കൂടിയുള്ളപ്പോൾ ഈ ആവി അങ്ങോട്ട് തൊണ്ടയിൽ കൊള്ളുമ്പോൾ കുറച്ച് ആശ്വാസമാണ് ഏറ്റവും കൂടുതൽ നമ്മുടെയവിടെ ചെയ്യുന്നത് ഉപ്പുവെള്ളമാണ് ആ ഉപ്പുവെള്ളം വായിൽ കൊണ്ടു കാർക്കിക്കും അതാണ് ഞങ്ങളുടെ കൂടുതലും ഗ്രാമത്തിലുള്ളവരൊക്കെ ചെ ഇതു അതാണ് ഞങ്ങളുടെ നാട്ടു വൈദ്യത്തിലുള്ളത് അതും ഒന്നും പോരെങ്കിലെ ഞങ്ങൾ മെഡിസിനിലോട്ടു പോകാത്തുള്ളൂ ഇതാണ് സാധാരണയായിട്ടു ഞങ്ങൾ ചെയ്യാറുള്ളതും